ഞങ്ങളുടെ ഗ്രാമത്തിൽ അത്യാവശ്യം രീതിയിൽ വ്യവസായങ്ങളൊക്കെ നടന്ന് പോകുന്ന ഒരിടം തന്നെയാണ് ഇവിടെ കൂടുതലായിട്ട് കണ്ട് വരുന്നത് ക്വാറികളിൽ നിന്നുള്ള ചരക്കല്ലിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക അതുപോലെ തന്നെ ടൈൽസ് ഉണ്ടാക്കുക ഗ്രാനൈറ്റ് ഉണ്ടാക്കുക അതേപോലെയുള്ള വീട് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങള് സിമൻ്റിൻ്റെ ഉൽപ്പന്നങ്ങള് അതുപോലെ ഹോളോ ബ്രിക്സ് ഉണ്ടാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ വ്യവസായ കേന്ദ്രങ്ങള് ഞങ്ങളുടെ നാടിന് ചുറ്റും ഉണ്ട് അതുപോലെ തന്നെ പെപ്പർ സ്പൈസസായിടുള്ള കുറേ സാധനങ്ങളുടെ വ്യവസായ കേന്ദ്രങ്ങളുണ്ട് അതുപോലെ റബ്ബർ ഉണ്ടാക്കുന്നതിൻ്റെ വ്യവസായ കേന്ദ്രങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് തരത്തിലുള്ള വ്യവസായ കേന്ദ്രമുള്ളൊരു ഗ്രാമം തന്നെയാണ് ഞങ്ങളുടേത് റബ്ബറ് റബ്ബറ് തോട്ടങ്ങൾ ഒരു പാട് ആളുകളിവിടെ നിർമ്മിക്കുകയും അതിൽ നിന്ന് അവര് റബ്ബർ ശേഖരിച്ച് ആ റബ്ബർ ഷീറ്റുകള് നിർമ്മിച്ച് അതിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ അതിൻ്റെ കച്ചവടക്കാർക്ക് കൊടുത്ത് നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളുടെ ഗ്രാമത്തിലെ വ്യവസായങ്ങളായിട്ടുള്ളത്